ഹലോ ആ മാം ഇത് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റല്ലേ ഹലോ ആ മാം ഇത് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റല്ലേ ആ മാം ഞാനവിടെ വര്ക്കീയ്യുന്നൊരു കാന്ഡിഡേറ്റാണ് ആ എനിക്ക് ഇപ്പോള് ഒരു റെ റെസിഗ്നേഷന് വേണമായിരുന്നു ആ റിസൈന് ചെയ്യാന് രണ്ടു വര്ഷമായിട്ട് അവിടെ വര്ക്കീയ്യുന്നുണ്ട് ആ പേര് അനിതകുമാരീന്നാ പേര് ആ മാം എനിക്ക് കുറച്ചൂടെ പിന്നെ മെച്ചമായിട്ട് ഒരു ജോബിന്റെ ഓപ്പര്ച്യൂണിറ്റി വന്നിട്ടുണ്ട് ഇപ്പോള് ആ ഇവിടെ സാലറി എനിക്ക് കുറച്ചു കുറവാണ് അപ്പോള് കുറച്ചുകൂടീ ഇതായിട്ടുള്ള ഒരു ഓപ്പര്ച്യൂണിറ്റി വന്നിട്ടുണ്ട് അതിലേക്കു മാറാന് വേണ്ടിയിട്ടായിരുന്നു മാം അത് എനിക്ക് റെസിഗ്നേഷന് തരുവാണെങ്കില് എനിക്കത് വളരെ ഹെല്പ്ഫുള്ളായിരിക്കും മാം പിന്നേ അപ്പോള് ഞാനിത് മാറി പോവുന്നോണ്ട് മാം എനിക്ക് റെസിഗ്നേഷന് തരാന് തയ്യാറാണല്ലോ അല്ലേ എനിക്ക് ദൂരം കൂടുതല് എന്നാല് അല്ലെങ്കില് ഇപ്പോള് എനിക്ക് സാലറി ആണ് അവിടെ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോള് എനിക്ക് സാലറി കൂടുതല് ഇവിടെ അത്രയും സാലറി ഇവിടെ തരാമെങ്കില് ഞാനിവിടെ തന്നെ തുടരാന് തയ്യാറാണ് അതിന് ആന്നിപ്പോള് ആ മ്മ്

ആ മാം എനിക്ക് പിന്നെ ദൂരെ യാത്ര ചെയ്യുന്നേന്നും അല്ല പ്രശ്നം ട്രാവലിങ്ങിന്റെ പ്രോബ്ലം അല്ല ഉള്ളത് ഇപ്പോള് നല്ലൊരു സാലറി ഇപ്പോള് കൂടെ ഓഫറെയ്തിട്ടുണ്ടവര് ആ ആ കമ്പനിയില് നിന്ന് അപ്പോള് എനിക്ക് ആ സാലറിയിലേക്കാണ് ആ സാലറി അത്രയും എനിക്ക് ഇവിടെ കിട്ടുവാണെങ്കില് ആ ഞാനിവിടെ തുടരാന് തയ്യാറാണ് അവര് ഓഫറീയ്തിരിക്കുന്നത് ഇവിടെ കിട്ടുന്നതില് കൂടുതലുണ്ട് മാം ആ ഒരു റ്റെന് തൗസന്റ് ആ ഒരു ഫൈവ് തൗസന്റ് ആ ഓക്കെ മാം ആ മാം പിന്നേ മാം മാമിന് സുഖമാണോ അതെയതെ ആണല്ലേ അല്ലെ കുട്ടികളൊക്കെ ഇപ്പോള് പഠിച്ചു കൊണ്ടിരിക്കുന്നു ആ കുട്ടിയുണ്ട് ആ ഉണ്ടുണ്ടുണ്ട് ആ പിന്നേ മാം മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ എനിക്ക് ഇവിടെ ഈ ഇവിടെ ഈ ഓഫീസില് ഞാന് തുടരാം പക്ഷെ എനിക്കൊരു പ്രൊമോഷൻ എന്തായാലും ഇപ്പോള് സാലറിയും ഓഫറേയ്യണം പ്രൊമോഷനും

ഞാനൊരു ടു ടു ഇയേഴ്സായിട്ടിവടെ വര്ക്കെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോള് തീര്ച്ചയായിട്ടും എനിക്ക് അതിനുള്ള ഒരര്ഹതയുണ്ട് എന്നാണ് എന്റെ വിശ്വാസം ആ അതില് ഉള്പ്പെടുത്തി എനിക്ക് സാലറി ഓപ്പര്ച്യൂണിറ്റി കൂടെ കിട്ടുവാണെങ്കില് മാം ഞാനിവിടെ തന്നെ തുടരാന് തയ്യാറാണ് അത് കുഴപ്പം ഇല്ലായിരുന്നു

ആ പിന്നെ എന്തുവാ മാം ആ മറ്റ് പ്രോബ്ലംസൊന്നും തന്നെയില്ലാ മാം ഇതാണ് എന്റെ അ സ്റ്റാഫുവായിട്ടൊക്കെ നല്ല കോപ്പറേഷനില് തന്നെ പോകുന്നുണ്ട് ആ സ്റ്റാഫുകള്ക്കൊന്നും കുഴപ്പമില്ല എനിക്ക് മറ്റു പ്രോബ്ളംസൊന്നും ഇല്ല ഇപ്പോള് സാലറി ഓപ്പര്ച്യൂണിറ്റി ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതെയതെ വിത്ത് പ്രൊമോഷന് എനിക്ക് സാലറി ഓഫര് ആ ഓക്കെ മാം ഓക്കെ മാം മാമിന്റെ വിലപ്പെട്ട സമയമാണ് ഞാന് എടുത്തത് ഓക്കെ മാം താങ്ക്യൂ ഓക്കെ ഓക്കെ